ഞാൻ പുസ്തകം വായിക്കുന്നത് മലയാളഭാഷയിലുള്ള പുസ്തകമാണ് എനിക്കത് വായിക്കാനാണ് താല്പര്യം മലയാളഭാഷ വായിക്കുമ്പോൾ നമുക്കത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കാനും മനസ്സിനെ ഇരുത്തി വായിക്കാനും നമുക്കത് പറ്റും പറ്റുന്നുണ്ട് മലയാളഭാഷയെ സംബന്ധിച്ച് നമ്മളെ നമ്മൾ മലയാളികളായതുകൊണ്ട് അതിനെയാണ് കൂടുതൽ ഞാനിഷ്ടപ്പെടുന്നത് അല്ലാതെ പുതിയൊരു ഭാഷ പഠിച്ച് അതിന്റെ പുസ്തകങ്ങൾ വായിക്കണോയെന്ന് എനിക്ക് താല്പര്യമില്ല ഞാൻ മലയാളപുസ്തകങ്ങളെല്ലാം കൂടുതലും വായിക്കും കാരണം നമ്മൾക്ക് പിന്നെ നോവലുകളൊന്നുമങ്ങനെ വായിക്കാനെനിക്ക് താൽപര്യമില്ല ചെറിയ ചെറിയ കഥകൾ പോലെയുള്ളതും പിന്നെ നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും നമ്മുടെ പിന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ചില കാര്യങ്ങളെല്ലാം നമുക്കിഷ്ടമാണ് പിന്നെ കൂടുതലും നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ വായിക്കാനാണ് താൽപ്പര്യം കാരണം മറ്റ് മാർ മറ്റ് പുസ്തകങ്ങളോട് നമക്ക് താൽപ്പര്യമില്ലെന്നല്ല

അല്ലാതെ പുതിയൊരു ഭാഷ പഠിച്ച് പുതിയൊരു പുസ്തകം വായിക്കാനുള്ള താൽപ്പര്യം അതിന്റെയാവശ്യം നമ്മൾക്കില്ല നമ്മൾ മലയാളികളാണ് മലയാളത്തോടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളും അവർ ഇങ്ക്ളീഷ് മീഡിയം പഠിക്കുന്നുണ്ടതൊക്കെ ശരിയാണ് പക്ഷേ മലയാളം നമ്മൾ മറ മറന്നു പോകാതെ മാതൃഭാഷയെ നമ്മൾ ഉൾക്കൊണ്ടുവേണം മുന്നോട്ടുപോകാൻ മാതൃഭാഷയാണ് നമ്മുടെ ഭാഷ അത് നമ്മൾ മലയാളികളാകുന്നിടത്തോളം കാലം നമ്മളതിനെയാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്